സുഹൃത്തുക്കളെ ബൈക്ക് യാത്ര എന്ന് പറയുന്നത് തന്നെ വളരെ മനോഹരമാണ് ജീവിതത്തിൽ എല്ലായിടത്തേക്കും യാത്രകൾ പോകണം യാത്രകൾ നമ്മൾ മനസ്സിന് സ്വാന്തനവും ആശ്വാസവും നൽകുന്നതാണ് പ്രത്യേകിച്ചു ബൈക്ക് യാത്ര ആവുമ്പോൾ ബൈക്ക് സഞ്ചാരമാവുമ്പോൾ ഇത് പ്രത്യേക സുഖം നമുക്ക് നൽകും ബൈക്ക് യാത്ര പോകുമ്പോൾ അതിൻ്റെതായ നമ്മുടെ നല്ല കോടമഞ്ഞുള്ള ഊട്ടി മൂന്നാർ സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് അതിനെ ആസ്വദിക്കാൻ കഴിയുന്നതാണ് ബൈക്ക് യാത്രയിൽ തന്നെ പലതരം ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് ബൈക്ക് യാത്ര അത്ര വിശപ്പ് നമുക്ക് അറിയുകയില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ ബജറ്റുകൾ നമ്മൾക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും പ്രത്യേകിച്ചു പണ്ട് ഞാനൊക്കെ മൂന്നാറിലൊക്ക് പോയ സമയത്ത് ബൈക്ക് യാത്ര പോയ സമയത്ത് ഞാൻ അന്ന് ഒന്നും കഴിച്ചിട്ടില്ല ആകെ വൈകുന്നേരം ഒരു പഴം പൊരി ചായ മാത്രം കുറച്ചു പഴംപൊരി ചായ മാത്രം കഴിച്ചു കാരണം അത് നല്ല തണുപ്പാണ് ബൈക്ക് യാത്രയാകുമ്പോൾ ആ കാറ്റ് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് വശപ്പിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല പിന്നെ ബൈക്ക് യാത്രയിൽ കുറേ സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നമ്ക്ക് കാണാൻ സാധിക്കും കുറേ നേരം ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഊരവേദനയാകും ചന്തി വേദനയാകും അതുപോലെ തന്നെ തലവേദന തുടങ്ങിയ പല വേദനങ്ങളും നമ്മൾക്ക് അനുഭവപ്പെടും ഇപ്പം സ്വാഭാവികമാണ് ഏത് യാത്രയാകുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അതിന് ഉണ്ടാവും ബൈക്കാവുമ്പോൾ നമ്മൾ തന്നെ ഓടിക്കണം കൈ വേദന ഉണ്ടാകും അതൊക്കെ നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് വച്ചു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് തോൾ വേദന പ്രത്യേകിച്ചു നമ്മൾ ബൈക്കിങ്ങ് റൈസ് കൊടുക്കുമ്പോൾ ഗിയറ് മാറ്റി കളിക്കുമ്പോഴൊക്കെ നമ്മൾ കാല് വേദനകൾ തുടങ്ങിയ പല വേദനകൾ നമുക്ക് ഇത് അനുഭവിച്ചിട്ടുണ്ട് അതിനൊക്കെ പരിഹാരമെന്ന് വച്ചാൽ കുറച്ചു നേരം നിർത്തി ഇടുക ബോഡിയൊന്ന് ഇളക്കിയിട്ട് നല്ല പിന്നെ റൈഡ് തുടങ്ങുക എന്നുള്ളതാണ് ബൈക്ക് യാത്ര ആകുമ്പോൾ നമുക്ക് വായു ഒക്കെ സൃഷ്ടിച്ചു കൊണ്ട് നല്ല നാച്ചുറലായ ഒരു പ്രകൃതിയെ നല്ല രീതിയിൽ ആസ്വദിച്ചു കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാണുന്നത് ബാക്കിയുള്ള വാഹനങ്ങളെ കാട്ടിലും യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായി ബൈക്ക് യാത്ര വ്യത്യസ്തമാക്കുന്നത് ഇത്തരം നല്ല മനോഹരമായ കാഴ്ചകളും നേച്ചറിനെ ആസ്വദിക്കാനുള്ള ഒരു അവസരം അതിൽ നമുക്ക് തുറന്നു തരുന്നുണ്ടെന്നുള്ളതാണ് ഇതിനാൽ തന്നെ ഇത്രയും പ്രത്യേകത കൊണ്ട് ബൈക്ക് യാത്രയ്ക്ക് എന്നുള്ളത് പക്ഷേ വേദനകൾ നമ്മൾ അതിജീവിച്ചു കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതൊന്നും കൂടി രസകരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല ബൈക്ക് യാത്ര എല്ലാ ബൈക്ക് യാത്രയ്ക്കും ആശംസകൾ നേരുന്നു